ഒരു ട്രെയിനിൽ ഒരുപാട് സീറ്റുകളുണ്ട് അതിൻ്റെ മുകളിൽ അതേ ഷേപ്പിൽ ബെർത്തുകളുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ചക്രങ്ങളാണ് പക്ഷേ അത് ഒരു ഒരുപാട് നീളം ഉള്ളതുകൊണ്ട് ഒരുപാട് ചക്രങ്ങളുണ്ട് ഒരുപാട് ട്രാക്കുകളുണ്ട് ബോഗികൾ ബോഗികൾ ഒരുപാടുള്ളതുകൊണ്ട് അതിന് ഒരുപാട് നീളം ഉണ്ട് ആ ട്രെയിനിൽ ഇലക്ട്രിക്കാണ് ഇപ്പോഴത്തെ പണ്ട് കൽക്കരി ഉപയോഗിച്ച് കൊണ്ടിരുന്ന ട്രെയിനുകളാണ് ഇലക്ട്രിക് ട്രെയിനുകൾ ലൈൻ കമ്പിയെ ടച്ച് ചെയ്താണ് മുകളിലൂടെ പോവുന്നത് മണ്ടയിലൊരു എന്തോ ഏരിയേല് പോലൊരു സാധനം പിടിപ്പിച്ചിട്ടുണ്ട് അത് ടച്ച് ചെയ്താണിത് മുന്നോട്ട് പോവുന്നത് ട്രെയിന് ഓടിക്കാൻ വേണ്ടി ഒരാളുണ്ട് ഒരു ഡ്രൈവർ എന്ന് പറയുന്ന പോലെ ഒരാൾ ട്രെയിനിൽ നിയന്ത്രിക്കാനായിട്ട് ഒരാളുണ്ടാകും ഓരോ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴും അവ ട്രെയിനവിടെ സ്റ്റോപ്പ് ചെയ്യും ട്രെയിനേല് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ് ട്രെയിനേൽ യാത്ര ചെയ്യുമ്പോൾ നല്ല നല്ല കാഴ്ചകളും ഉൾഗ്രാമങ്ങളും കാണാൻ പറ്റും നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് ട്രെയിനേൽ യാത്ര ചെയ്യുമ്പോൾ നല്ല യാത്രാസുഖം ഉണ്ടാകുന്നു നടുവേദനയോ കാര്യങ്ങളോ ഒന്ന് സീറ്റേയിൽ ഇരിക്കുമ്പം ഉണ്ടാവുന്നതല്ല ട്രെയിന് വലിയ കുലുക്കാമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതല്ല ട്രെയിന് ചെറിയ ചെറിയ ജനലുകളുണ്ട് രണ്ട് സൈഡിലുമുണ്ട് നടുവിൽക്കൂടെ കുറച്ച് സ്പേസ് നീളത്തിലും ഉണ്ടാവും അതിലൂടെയാണ് നമ്മൾ നടന്ന് പോകുന്നത് ട്രെയിനേൽ എത്ര നേരം വേണമെങ്കിലും നിന്നുകൊണ്ടും യാത്ര ചെയ്യാൻ സാധിക്കും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നത് രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ നമ്മൾ ഇറങ്ങുന്ന ഇറങ്ങുന്നവർ ഇറങ്ങിക്കഴിഞ്ഞ് കയറിയിരിക്കണം ഓടുന്ന ട്രെയിനിൽ ആരും കയറാൻ പാടില്ല റെയിൽവേ ക്രോസ് ചെയ്ത സമയത്ത് റെയിൽ പാളത്തിലൂടെ വേറെ വണ്ടികളും കടന്നു പോകാൻ പാടില്ല ട്രെയിന് ഒരു സമയം ഒരു പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റോപ്പിൽ ഓരോ സ്റ്റോപ്പില് എത്തുന്നതാണ് എത്ര കിലോമീറ്ററാണേൽ പോലും ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ല പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് അടുത്ത ജില്ലയിൽ എത്തിപ്പെടുന്നതാണ് എല്ലാ സ്റ്റോപ്പിലും എല്ലാ ട്രെയിനുകളും നിർത്തണമെന്നില്ല ലോങ് പോകുന്ന ദൂരക്കൂടുതൽ പോകുന്ന ട്രെയിനുകളൊക്കെ സ്റ്റോപ്പൊക്കെ കുറവായിരിക്കും പ്രാദേശിക ട്രെയിനുകളാാണ് എല്ലാ സ്റ്റേഷനുകളിലും നിർത്തി നിർത്തി പോകുന്നത് ഒരുപാട് ആൾക്കാരെ വഹിച്ചുകൊണ്ട് ട്രെയിന്ന് നല്ല സ്പീഡിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ട്രെയിനേൽ എല്ലാവർക്കും കയറാൻ ഇപ്പോഴും ഇഷ്ടമാണ് പക്ഷെ ട്രെയിനേൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഭക്ഷണം കഴിക്കുന്നതും അവിടെ ടോയ്ലറ്റ് ഉപയോഗം വളരെ വൃത്തിഹീനത് വൃത്തിഹീനവുമാ വൃത്തിയില്ലാത്തതുമാണ് അതുകൊണ്ട് മടി പിടിച്ച് ട്രെയിനിൽ കയറാത്ത ആൾക്കാരും ഉണ്ടാവും